മാറി മാറി വരുന്ന കാലാവസ്ഥകളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ കൂടുതലായിട്ടും രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം ആശാ ഈ വർക്കേസ് ഹെൽത്ത് ഇൻസ്പെക്ടർ അങ്ങനെ ഉള്ള ഒരു കൂടുതലായിട്ടും ഈ രോഗങ്ങൾ പടരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങളെ തടഞ്ഞുവെക്കാനായിട്ട് കൂടുതൽ ബോധവൽക്കരണം നടത്തുക സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുക അതേപോലെ ജോലി സ്ഥാപനങ്ങൾ കൂടുതൽ പേര് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബോധവൽക്കരണം നടത്തുക അല്ലെങ്കിൽ ഈ ആശാ വർക്കേസ് വീടുകൾ തോറും കയറിയിറങ്ങി ഒന്ന് ഓരോ നോട്ടീസ് ആയിട്ട് അല്ലെങ്കിൽ അവരെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒന്ന് ആൾക്കാരെ ബോധവൽക്കരണം ചെയ്യുക മാസത്തിലൊരിക്കൽ എവിടെയാണോ ആളുകൾ കൂടുതൽ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇറങ്ങുന്ന ആ ഇടങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ രോഗങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞിരിക്കും നിരന്തരം ഉണ്ടാകുന്ന പുതിയ പുതിയ വൈറസുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ രോഗങ്ങളെ തടയാൻ ആയിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല മനുഷ്യരെ ബോധവൽക്കരണം ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെക്കാലത്ത് കൂടുതലും അറിവുള്ളവരാണ് അല്ലെങ്കിൽ കൂടുതലും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇവരെ സംബന്ധിച്ചെടുത്തോളം അവരെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാകുന്നതേയുള്ളൂ അതുകൊണ്ട് മനുഷ്യരിലേക്ക് ബോധവൽക്കരണം നടത്തുന്നത് നല്ലതാണ് നമ്മുടെ ഗവൺമെൻ്റും ഇതിനുവേണ്ടി കൂടുതൽ ആൾക്കാരെ വിന്യസിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ ദിക്കിലേക്കാണോ കൂടുതൽ ബോധവൽക്കരണം പിന്നെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരിലേക്ക് നമ്മൾ അവരുടെ ലാംഗ്വേജ് അവർക്ക് മലയാളം അറിയാമെങ്കിലും അവരുടെ ലാംഗ്വേജിലും കൂടെ ഒന്ന് അവരെ ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ ഈ ജോലി ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ളത് ബംഗാളികളാണ് അവരേയുംകൂടി ബോധവൽക്കരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റാനും സാധിക്കും